കോഴിവളർത്തുന്നത് ഒരു നല്ല ഒരു നമുക്ക് നല്ല ലാഭമുള്ള ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ തീർച്ചയായും നല്ല അത്ര നമുക്ക് അത്ര നമുക്ക് കഠിനമേറിയ കാര്യമൊന്നുമല്ല കോഴിവളർത്തുന്ന രീതി ചോദിച്ചാൽ നമുക്ക് നാലു കോഴിയാണെങ്കിൽ അല്ലെങ്കിൽ പത്തു കോഴിയാണെങ്കിൽ അതിലൊരു പൂവൻകോഴിയും മറ്റ് പിടക്കോഴികളെയും വച്ച് വളർത്താവുന്നതാണ് പിന്നെ കോഴിയുടെ കോഴിക്ക് പ്രത്യേകിച്ചൊരു കൂട് കെട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് മരത്തിൻറെയൊക്കെ കൂടാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ നഗരങ്ങളിലൊക്കെയാണെങ്കിൽ കോഴികളുടെ ഒരു പ്രത്യേക സമയത്തുമാത്രം പുറത്തുവിടുക പിന്നെ കൂട്ടിലടയ്ക്കാവുന്നതാണ് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ എപ്പോഴും തുറന്ന് വിടാനും കുറച്ചുംകൂടി സ്വതന്ത്രമായിട്ട് കൂടിൽ നടക്കാനും അനുവദിക്കാവുന്നതാണ് പിന്നെ കോഴിവളർത്തുന്നത് തീറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ അരി ഗോതമ്പ് സോയ മീൻപൊടി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തീറ്റയുള്ള കോഴികൾ കഴിക്കാറുണ്ട് പിന്നെ നമുക്ക് ഓരോ കോഴി ഓരോ കോഴിയിനങ്ങളുണ്ട് നാടൻകോഴിയുണ്ട് ബ്രോയിലർ കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് ടർക്കി അങ്ങനെ ഒരുപാട് കോഴികളുണ്ട് അപ്പോൾ അതിനനുസരിച്ചു ഒരു മുട്ടയിടുന്നതിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് ബ്രോയിലർ കോഴിയാണെങ്കിൽ ഒരുപാട് കാലം മുട്ടയിടും നാടൻ കോഴിയൊക്കെയാണെങ്കിൽ കുറച്ചുകാലം മുട്ടയിടും പിന്നീടത് അടയിരിക്കാനുള്ള ഒരു കാലഘട്ടത്തിലോട്ട് മാറും അങ്ങനെ മുട്ടയിടാൻ വേണ്ടി സാധാ കൂടുത്തന്നെ ഉപയോഗിക്കാം പിന്നീട് മുട്ട വിരിയിക്കാനുള്ള ഇതൊക്കെയാണെന്നുവച്ചാൽ മറ്റു വേറെ കൂട്ടിലോട്ട് മാറ്റി അതിനെ അവിടെ ഇരുന്ന് മുട്ടവിരിയിക്കാവുന്നതാണ് പിന്നീട് കൊടുക്കുകയാണെങ്കിൽ തീറ്റയൊക്കെ അത്യാവശ്യം നല്ല തീറ്റയാണ് കോഴിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചു നമുക്ക് നല്ല മുട്ടകിട്ടും പിന്നെ കോഴി വളർത്തുകയെന്നു പറയുമ്പോൾ നമുക്ക് മുട്ട നമുക്ക് വെളിയിലും കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വീട്ടാവശ്യങ്ങൾക്കും മുട്ടയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കോഴീനെ കോഴിയുടെ ഇറച്ചിയായിട്ടും നമുക്ക് കോഴി ഉപയോഗിക്കാം പിന്നെ വീടുകളിൽ നമ്മൾ ചെറിയ ചെറിയ മൃഗങ്ങൾ വീട്ടിൽ ഇപ്പോൾ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നായക്കുട്ടിയുണ്ട് അപ്പോൾ അതിനെ പരിപാലിക്കാൻ ചെറിയൊരു കൂട് കെട്ടിയിട്ടുണ്ട് അത് വീടിൻ്റെ ഉള്ളിലോട്ടങ്ങനെ വരാറില്ല അപ്പോൾ അതിൻറെ ഭക്ഷണം കാര്യങ്ങളും അതെല്ലാം കഴിക്കാറുണ്ട് വീട്ടിൽ നമ്മൾ കൊടുക്കണ എല്ലാം കഴിക്കാറുണ്ട് ഇറച്ചിയും മീനും ഇടയ്ക്ക് ആഴ്ചയിൽ കൊടുക്കും പിന്നെ ചോറും മറ്റ് കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട് പിന്നെ കുളിപ്പിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ രണ്ടാഴ്ച്ച കൂടുമ്പോൾ ആഴ്ച്ചയിലൊരിക്കലൊക്കെ കുളിപ്പിക്കാറുണ്ട് അങ്ങനെ കുഴപ്പമില്ല നമ്മൾ ചെറിയ മൃഗങ്ങളെ വളർത്തുകയാണ് വെച്ചാൽ ഒരുപാട് നമുക്ക് നായ്ക്കളൊക്കെ വളർത്തുകയാണ് വെച്ചാൽ ഒരുപാട് നല്ല കാര്യമാണ് കാരണം വീട്ടിലാരെങ്കിലും വരുമ്പോൾ നമുക്ക് നമുക്ക് ഒരു അല്ലെങ്കിൽ നമുക്കൊരു വീട്ടിൽ ഒരു നമുക്കൊരു സമാധാനത്തോടെ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരാൾ കാവലായി നിൽക്കുന്നുണ്ടെന്നൊരു ഇത് വരും അങ്ങനെ കോഴിവളർത്തലും അത്യാവശ്യം നല്ല ഒരു ഇതുതന്നെയാണ് കോഴി അത്യാവശ്യം വീട്ടിലെ മറ്റ് തീറ്റ ഗോതമ്പ് അരി ഒഴിച്ചു ബാക്കി മറ്റും നമ്മുടെ വീടുകളിൽ ബാക്കി വരുന്ന കറികളും മറ്റ് ചോറും ഒക്കെ കോഴികൾ കഴിക്കാറുണ്ട്